ഭാരതം ഒരു മതേതര രാഷ്ട്രമാണ് ഈ മതേതര രാഷ്ട്രത്തിൽ ഇന്ന് നടക്കുന്നത് മതപരമായ കാര്യങ്ങളിലൂടെയുള്ള അധിക്രൂരമായ പ്രമാസക്തങ്ങളാണ് നടക്കുന്നത് അല്ല ഇപ്പം എല്ലാ മതത്തിനും അതിൻ്റേതായ നല്ല നല്ല വശങ്ങളുണ്ട് എല്ലാ മതങ്ങളും നല്ലതാണ് ഇത് ഇതിൻ്റെ പേരിലാണ് ഒരു കൂട്ടർ പിന്നെ മർദ്ധനം ഏൽക്കുന്നതും വിപ്ലവം ഉണ്ടാക്കുന്നതും അല്ല അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഒരു ജനാധിപത്യ ഭരണമല്ലേ മതമേതായാലും ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതല്ലേ അപ്പോൾ ഓരോ മതത്തിനും അതിൻ്റെതായ വിശ്വാസവും താൽപര്യവും അതിൻ്റേതായ പങ്കാളിത്തവും എല്ലാം ഉണ്ട് ഓരോരുത്തർക്കും ഹിന്ദുമതത്തിന് അതിൻ്റേതായ വിശ്വാസം ക്രിസ്തുമതം ഇസ്ലാം മതം എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട മതങ്ങളാണ് ഭരതത്തിൽ മതങ്ങളെല്ലാം കൂടെ കൂടിയാണ് തിങ്ങിപ്പാർക്കുന്നത് അപ്പോൾ ഏത് മതത്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത് ആ മതത്തിൽ ആ വിശ്വാസത്തോട് കൂടെ മുന്നോട്ട് പോകുക എന്നുള്ള ഒരേ ലക്ഷ്യം പിന്നെ ഏതായാലും ദൈവത്തിൽ ആശ്രയിച്ചു ജീവിക്കുക അല്ലേ ഒരു സർവ ശക്തിയൊണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ മതത്തെ പറഞ്ഞു നമ്മൾ ഒന്നിനും തയ്യാറാകുന്നത് ശരിയല്ല മതം എല്ലാവർക്കും വേണ്ട അവനവൻ ഏത് വിശ്വാസത്തിലാണോ ജീവിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ മതത്തിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിൽ ഒരു വൃത്യാസമില്ല എല്ലാ മതങ്ങളും വളരെ നല്ലതാണ് അവരുടേതായ ആചാര രീതികളും വ്യത്യസ്തമാണെന്നെയുള്ളു അല്ലേ ഓരോ ആചാരം ഓരോ മതത്തിനും അതിൻ്റേതായ ആചാര രീതികളുണ്ട് അതനുസരിച്ചു ആ വ്യക്തികൾ മുന്നോട്ട് പോകുന്നു ആ ഓരോ വ്യക്തികളും അതിൽ വിശ്വസിച്ചു അതിൽ പങ്കാളികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്